ആ ഓക്കെ സർ നമസ്കാരം നമ്മൾ ട്രാവൽ ഏജൻസിയിൽ നമ്മൾ ഇവിടെ ഇപ്പം പല സ്ഥലങ്ങളിലേക്കുള്ള ടിക്കറ്റ് ബുക്കിങ്ങ് ചെയ്യുന്നുണ്ട് അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ പിന്നെ ഫുൾ പാക്കേജായിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് സർക്ക് എങ്ങനത്തെ ട്രിപ്പ് പോവാനാണ് താല്പര്യം ചെറുതാണോ അല്ലെങ്കിൽ വലിയ വെക്കേഷനാണോ ഉദ്ദേശിക്കുന്നത് ആ ഓക്കെ അപ്പോൾ വീക്കെൻ്റ്സ് ഒരു രണ്ടു ദിവസം മൂന്നു ദിവസത്തിനുള്ളിലുള്ള ട്രിപ്പുകളാണോ സർ ഉദ്ദേശിക്കുന്നത് ആ ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിൽത്തന്നെ ഉള്ളത് ചെയ്യാം ഇല്ലെങ്കിൽ കേരളത്തിന് തൊട്ടടുത്ത് ഒന്നുമില്ലെങ്കിൽ ഗോവ ആന്ധ്രപ്രദേശ് കർണ്ണാടക അതുപോലെ തമിഴ്നാട് ഇതിൻ്റെ ഉള്ളിലുള്ള എവിടെയെങ്കിലുമായിട്ടും ചെയ്യാൻപറ്റും സർക്ക് എങ്ങനെയാണ് പോകേണ്ടത് കൃത്യമായിട്ടൊരു ഡെസ്റ്റിനേഷൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ ഓക്കെ സർ അങ്ങനെയാണ് ആ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് നല്ലൊരു ഹിൽസ്റ്റേഷനുള്ളത് നമുക്ക് മൂന്നാർ പോവാൻ പറ്റും അതുപോലെ നീൽഗിരീസിൽ പോവാൻ പറ്റും അല്ലെങ്കിൽ ഫുള്ളൊരു ഇടുക്കി ട്രിപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അങ്ങനെയല്ല നമുക്ക് തീരപ്രദേശങ്ങൾ പോലെയാണ് വേണ്ടതെന്നെങ്കിൾ ആലപ്പുഴ ഒരു ദിവസം ബോട്ടിംഗ് കുറച്ചങ്ങനെ കുറച്ച് ടൈം സ്പെൻ്റ് ചെയ്യാനുള്ള സ്ഥലം അവിടുത്തെ കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല രീതിയിൽ ഒരു രണ്ടു ദിവസം സ്പെൻ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് ഉണ്ട് ഇനി അങ്ങനെ അല്ല ഒരുപാട് സ്ഥലങ്ങൾ ഒരുമിച്ച് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനേയും ചെയ്യാം സർക്ക് എങ്ങനത്തെയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ഹിൽ സ്റ്റേഷൻസ് നല്ല ഒരു ഓപ്ഷൻ ആണ് അത് ഓക്കെ ആണോ ഓക്കെ തീരപ്രദേശങ്ങളാണെങ്കിൽ ആലപ്പുഴ നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ് നമുക്ക് ആലപ്പുഴയിൽ ഇപ്പം സീസണും കൂടിയാണ് അതുകൊണ്ടുതന്നെ സർക്കിപ്പം പോകുകയാണെങ്കിൽ ഒരു ഫുൾ ഡേ ഹൗസ്ബോട്ടിൽ സ്പെൻ്റ് ചെയ്യാം രാവിലെ ബ്രേക്ഫാസ്റ്റ് വച്ചു സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഹൗസ്ബോട്ടിൽ ഫുൾടൈം സ്പെൻ്റ് ചെയ്യുന്ന പോലെ ഫുൾ ഡേ സ്പെൻ്റ് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അതുപോലെ ഒരു ചായയും ഇൻക്ലൂഡഡ് ആണ് അതിനു ശേഷം ഒരു ആറുമണിയോടു കൂടി തിരിച്ച് എത്തുന്ന രീതിയിലാണ് ഹൗസ്ബോട്ടിൻ്റെ പ്ലാൻ ഉള്ളത് പിന്നെ അതല്ലാതെ അതിൻ്റെ പിറ്റേ ദിവസം കുറച്ചു സൈറ്റ് സീയിങ്ങും ഒക്കെയായിട്ട് ആലപ്പുഴ ഡിസ്ട്രിക്ട് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ബാക്ക്വാട്ടേഴ്സും കടൽ പ്രദേശങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറെ സ്ഥലങ്ങളൊക്കെ സർക്ക് വിസിറ്റ് ചെയ്യാൻപറ്റും അപ്പോൾ അത് ഓക്കെ ആണോ ചിലവ് നമുക്കിപ്പോൾ ഒരു അയ്യായിരം രൂപയിൽ ഇതു മുഴുവൻ എക്സ്പെൻസും കവർ ചെയ്യാൻ പറ്റും അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അതുതന്നെ ഫിക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ ആ ആ അയ്യായിരം രൂപയുടെ ആണ് വരുന്നത് ട്രാവല്ലിംഗും ടിക്കറ്റും എല്ലാം നമ്മൾതന്നെ അറേഞ്ച് ചെയ്യുന്നതാണ് നിങ്ങളെ സ്ഥലത്തു വന്ന് പിക്ക് ചെയ്യും തിരിച്ചവിടെ കൊണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഓക്കെയല്ലേ സർ ഓക്കെ ഓക്കെ താങ്ക് യു